ആരോഗ്യം നിലനിർത്താൻ നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഏർപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യം നിലനിർത്താൻ വച്ചിട്ടുണ്ടെങ്കിൽ മെയ്നായിട്ട് നമ്മള് മൂന്ന് നേരം കറക്റ്റ് ഭക്ഷണം കഴിക്കുക അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എല്ലാത്തരത്തിലുള്ള അതായത് നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ളൊരു സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ മൂന്ന് നേരം മാക്സിമം നല്ലവണ്ണം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലവണ്ണം എക്സസൈസ് അതായത് വീട്ടിൽ വെറുതെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മോർണിംഗ് വോക്ക് ഓർ ഈവനിംഗ് വോക്ക് അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലവണ്ണം നടക്കുക അതായത് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻ്റെറസ്റ്റുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക ആ സമയത്തിന് ഭക്ഷണം കഴിച്ചാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആദ്യം അത് ശ്രദ്ധിക്കുക പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിനിപ്പോൾ ഡയറ്റ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടക്കാവുള്ളു അങ്ങനെയൊക്കെയാകുമ്പോൾ നമുക്ക് ദഹന പ്രക്രിയയൊക്കെ നല്ല രീതിയിൽ നടക്കും നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും